മലയാള ഭാഷ ഈ പ്രദേശത്തെ മറ്റു ഭാഷകളെ നന്നായിത്തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മറ്റു ഭാഷകൾ മലയാളത്തിൽ നിന്ന് കടമെടുത്ത ഒരുപാട് വാക്കുകൾ അതിപ്പോൾ തമിഴായിരിക്കട്ടെ കന്നഡയായിരിക്കട്ടെ തുളുവായിരിക്കട്ടെ കൊങ്കണിയായിരിക്കട്ടെ അങ്ങനെ പല ഭാഷകളിൽ എന്തിന് ഇംഗ്ലീഷിൽ പോലും മലയാളത്തിൽ നിന്നു കടമെടുത്ത വാക്കുകളുണ്ട് അപ്പോൾ തമിഴ്നാട് കന്നഡ തുടങ്ങിയ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ അതിർത്തിക്ക് അടുത്തുള്ള ഈ സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പൊതുവെ രണ്ടു ഭാഷയും സംസാരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ രണ്ടു ഭാഷയും സംസാരിക്കുന്ന ആളുകൾ ഇവരീ ഓരോ കാ കാലം തോറും ഇങ്ങനെ രണ്ടു ഭാഷയും സംസാരിച്ചു വരുമ്പോൾ അത് അതനുസരിച്ച് രണ്ട് ഭാഷയിലും അവിടുന്നു പുതിയ പുതിയ വാക്കുകളുടെ ഉറവിടമാകാറുണ്ട് ഇങ്ങനത്തെ പ്രദേശങ്ങൾ അതുപോലെ തന്നെ മലയാളത്തിലുള്ള പല പ്രശസ്തരായ എഴുത്തുകാരുടെയും കവികളുടെയും ഒക്കെ ഭാഷാ ശൈലികളും അവരുടെ പല പ്ര പദ പ്രയോഗങ്ങളും എല്ലാം ബാക്കി ഭാഷകളിലേക്കു കടമെടുക്കാറുണ്ട് അങ്ങനെ ഈ മലയാള ഭാഷയിൽ നിന്നുള്ള എഴുത്തുകാരെ ഒക്കെ അവരുടെ സ്വാധീനം കൊണ്ട് പുതിയ പൊങ്ങി വന്ന ഒരുപാട് എഴുത്തുകാർ ഈ പറഞ്ഞ മറ്റു ഭാഷകളിലുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് മലയാള ബാഷ ബാക്കി ഭാഷകളെ സ്വാധീനം സ്വാധീനിക്കാറ്